ഫാഷനെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു ഇത് നല്ല ഫാഷനബിളായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് നല്ല ജീൻസൊക്കെ ഇടണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഇന്ത്യ ഈ പിന്നേയും ഇന്ത്യയുടെ പഴയ ഒരു കാലത്തിൽ നിന്ന് പുതിയ ഒരു കാലത്തിലോട്ട് വന്നപ്പോൾ നല്ല മാറ്റം കൊണ്ടു ഒത്തിരി ഡ്രസ്സ് ചേഞ്ചുകൾ ഒത്തിരി വന്നു നല്ല എല്ലാവരും ജീൻസിലോട്ടും ടോപ്പിലോട്ടുമൊക്കെയായി ഇപ്പോൾ സാരി ഒന്നും അധികം യൂസ് ചെയ്യാതെ ആയി എല്ലാവരും ഇപ്പം പൊതുവെ സ്ത്രീകൾ തന്നെ പ്രായായവർ തന്നെ ചുരിദാറിലോട്ട് മാറി കൂടുതലും ചുരിദാറാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് സാരിയിലോട്ടൊന്നും പോവുകയോ ഉടുക്കുന്നതെ ഇല്ല പിന്നെ ചുരിദാറിലോ കൂടുതലും ഫാഷനബിളായിട്ട് ചുരിദാർ തന്നെയാണ് ഇറങ്ങുന്നതും അത് ഉപയോഗിക്കുന്നതും ഒത്തിരി സ്ത്രീകൾ ആയിട്ടുണ്ട് ഒന്ന് നേരത്തേതിനെക്കാളും ഒത്തിരി ഒത്തിരി സ്ത്രീകൾ പ്രായായവർ വരെ തന്നെ ചുരിദാറാണ് ഉപയോഗിക്കുന്നത് കംഫർട്ടബിളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി ഉടുക്കുന്നതിനെക്കാളും എത്രയും പെട്ടെന്ന് ഉടുക്കുകയും ചെയ്യാം അതുകൊണ്ട് ഇതിൻ്റെ ഇത് ദേഹം മൊത്തവും മൂടി കിടക്കുകയും ചെയ്യും അതുകൊണ്ട് സ്ത്രീകൾക്ക് ദൂര യാത്രയ്ക്ക് ചുരിദാർ തന്നെയാണല്ലോ അപ്പോഴത്തേക്കും ചുരിദാറിൻ്റെ ഒത്തിരി വെറൈറ്റി ആയിട്ട് ഫാഷനബിളായിട്ട് ഒത്തിരി ഇറങ്ങുന്നുണ്ട് ഇത് ഒത്തിരിപ്പേര് അത് യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഒത്തിരി മോഡേണായിട്ടുള്ള സ്ത്രീകൾ കൂടുതലും ജീൻസും ടോപ്പും തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് ഈ ഇതിൻ്റെ എന്തായി കൂടുതലും ജീൻസും ടോപ്പും ഇടാനാണ് ഒത്തിരി ഇച്ചിരി മോഡേണായിട്ടുള്ളവരെല്ലാം ജീൻസും ടോപ്പും ഇടാനാണ് ആഗ്രഹിക്കുന്നത് എനിക്കും ജീൻസും ടോപ്പും ഇത് ചുരിദാറിൻ്റെകൂടെ ജീൻസിടുന്നതും ഒക്കെയാണ് ഇഷ്ടം കൂടുതലും പിന്നെ സാരി കുറച്ചൊക്കെ ഉടുക്കുന്നുണ്ട് സാരി ഒത്തിരി ഫാഷനബിളായിട്ടൊത്തിരി സാരികളൊക്കെ ഇറങ്ങുന്നുണ്ട് അത് ഉപയോഗിക്കുന്നവരുണ്ട് നല്ല ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ സാരി ഉടുക്കുന്നതാണ് അതിൻ്റെ ഒരു നല്ലത് പിന്നെ ചുരിദാർ ദൂര യാത്രയ്ക്കൊക്കെ എപ്പോഴും ചുരിദാറാണല്ലോ അതിൻ്റെതായിട്ടുള്ള ഒത്തിരി ഫാഷനബിളായിട്ടുള്ള ചുരിദാറുകളും മോഡലുകളുമൊക്കെ ഇഷ്ടംപോലെ ഇറങ്ങുന്നുണ്ട് ഓക്കെ